ഉണ്ട് ഞാൻ മിക്ക വിദ്യാഭ്യാസ ചാനലുകളും വെബ്സൈറ്റുകളും ഫോളോ ചെയ്യാറുണ്ട് അതേപോലെ അതില് കൂടുതൽ വിദ്യാഭ്യാസപരമായ കണ്ടൻറുകൾ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇന്ന് മിക്ക വീടുകളിലും ഇതേപോലെ ചാനലുകൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കാണുന്നതാണ് സോ അപ്പോള് അവർക്ക് കൂടുതൽ ചാനലുകളിൽ വിദ്യാഭ്യാസപരമായ കാര്യം കണ്ടന്റുകൾ ടി വിയിൽ കാണിക്കുന്നതിലൂടെ കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്താൻ സഹായിക്കും അതുകൊണ്ടു തന്നെ അത് കുട്ടികളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സഹായിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് സോ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ ടി വിയിലും മറ്റു മാധ്യമങ്ങളിലും ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അവർ ചാനൽ റേറ്റിംഗ് കൂടുതൽ നോക്കിയാണ് കണ്ടൻറ്റുകൾ ഇടുന്നത് അവരുടെ ടി ആർ പിക്ക് വേണ്ടി മാത്രമാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസവും വികസനവും ഒന്നും അവര് കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഇന്ന് ടി വി ഇല്ലാത്ത വീടുകളില്ല അല്ലെങ്കിൽ ഫോണില്ലാത്ത വീടുകൾ ഇന്നില്ല അത് യൂസ് ചെയ്യുമ്പോള് അതിലൂടെ അവർക്കൊരു പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ അതാണ് വളരെ നല്ലത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്